ഹലോ ഡോക്ടറാണോ ഡോക്ടറെ ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുവാണേ എൻ്റെ പട്ടിക്ക് നല്ല ദേഹം മൊത്തം ചോറിച്ചിലും ചെള്ളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ദേഹത്തിങ്ങനെ കയറി ഇരിക്കുകയാണ് കുറെ മരുന്നൊക്കെ കൊടുത്തിട്ടും മാറുന്നില്ല നമ്മളിപ്പോൾ എന്തോ ചെയ്യണമെന്നു പറയാമോ ഡോക്ടറെ ലാബ് ആണത്

നമ്മൾ അകത്ത് തന്നെയാണ് കിടത്തുന്നത് അകത്തു ടൈല്സിനകത്താണ് കിടത്തുന്നത്

ഡെറ്റോൾ ഉപയോഗിച്ചാണ് തറ തുടക്കുന്നതു ഡെറ്റോളും ലൈസോളൊക്കെ ഉപയോഗിച്ചാണ് അത് നമ്മള് തുടയ്ക്കാൻ പച്ചവെള്ളത്തിൽ തുടച്ചാൽ മതിയോ അത് അവളുടെ ആണല്ലേ അതുപോലെതന്നെ അവളുടെ രോമം നല്ല നല്ലത് പോലെ പൊഴിയുന്നുണ്ട് രോമം കൊഴിയുന്നുണ്ട് ഇപ്പോൾ ഈ ചെള്ളിനോ ചെള്ളിനുള്ള മരുന്ന് കുളിപ്പിച്ചാൽ മതി അല്ലാ വേറൊന്നും ചെയ്യേണ്ടല്ലേ ഓക്കേ ഡോക്ടറെ വേറെ എന്തെങ്കിലും കൊടുക്കണോ അവൾക്ക് ഇല്ല ഓക്കേ ഡോക്ടറെ അപ്പം വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കണ്ടല്ലോ വേറൊന്നും കൊടുക്കേണ്ട ഇപ്പം ഡോക്ടറവിടെ കാണുമല്ലോ അല്ലെ അതുപോലെതന്നെ വേറെ അസുഖങ്ങൾ ഒന്നും മരുന്ന് കൊടുത്താൽ വരത്തില്ലല്ലോ ടോണിക്ക് ഉണ്ട് ശരി ഡോക്ടറെ എന്നാൽ ഞാൻ നാളെ അങ്ങോട്ട് വരാം ഓക്കേ താങ്ക്യൂ